ഹലോ ഇത് ട്രാവൽ ഏജൻസി അല്ലെ ഞാൻ രണ്ടുദിവസം മുൻപേ ഇന്ന് ഒരു വിനോദ സഞ്ചാരകേന്ദ്രത്തിലേക്ക് പോവാൻ വേണ്ടി ഒരു ക്യാബ് ബുക്ക് ചെയ്തായിരുന്നു ഇന്ന് രാവിലെ തന്നെ എത്താമെന്നായിരുന്നു അദ്ദേഹം ഏറ്റിരുന്നത് പക്ഷേ ഇന്ന് ഞാനൊത്തിരി വട്ടം അവനെ വിളിച്ചുനോക്കി യാതൊരു വിധത്തിലുള്ള പ്രതികരണവുമില്ല നിങ്ങളുടെ ഈ അനാസ്ഥ എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതിൻ്റെ ഇതിന്റേതായ വ്യക്തമായ വിവരണം എനിക്ക് കിട്ടിയാൽ കൊള്ളാമായിരുന്നു കാരണം ഞാനിത് ഇത്രയൊന്നും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല ഏഹ് നിങ്ങളിങ്ങനെ അനാസ്ഥ കാണിച്ചതിലൂടെ എനിക്കും എൻ്റെ കുടുംബത്തിനും സ ഞങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട സമയമാണ് നഷ്ടമായത് ഇതിന് നിങ്ങൾ എന്ത് തരത്തിലുള്ള വിവരം വിവരണമാണ് തരാൻ പോകുന്നത് എനിക്ക് നിങ്ങളുടെ ഏജൻസിനെക്കുറിച്ച് ഇത്രേം നാളും ഇത്തരത്തിലുള്ള അഭിപ്രായം ഇല്ലായിരുന്നു നിങ്ങൾ ഭയങ്കര നല്ല രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ആൾക്കാരായിരുന്നു പക്ഷേ ഇങ് ഇങ്ങനെയുള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ പ്രവർത്തി ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല